ഓണം വരുന്ന സമയത്ത് ഞങ്ങൾ തിരുവാതിര കളി കളിക്കാറുണ്ട് ഞങ്ങൾ കുടുംബശ്രീക്കാരെല്ലാവരും കൂടി ഓണമാഘോഷിക്കുമ്പോള് തിരുവാതിര കളിക്കും പിന്നെ ഞങ്ങൾ പള്ളിയിൽ പെരുന്നാളുകൾ വരുമ്പോൾ പെരുന്നാളുകൾ വരുമ്പോഴത്തേക്കു ഞങ്ങൾ മാര്ഗ്ഗം കളി പിന്നെ സിനിമേറ്റിക് ഡാന്സുകൾ എന്നിവയൊക്കെ പ്രോഗ്രാമിനു ഞങ്ങളവതരിപ്പിക്കാറുണ്ട് പിന്നെയെന്നു വെച്ചാൽ പേ കുട്ടികളെല്ലാം പലതരത്തിലുള്ള ഡാന്സുകള് എന്നു പറഞ്ഞാല് മോഹിനിയാട്ടം കുച്ചിപ്പുടി പിന്നെ നാടോടിനൃത്തം സിനിമേറ്റിക് ഡാന്സുകൾ അതൊക്കെ ഞങ്ങളുടെ പള്ളികളില് മാ മ പള്ളിയിലാണ് ആനിവേഴ്സറി അങ്ങനെ പെരുന്നാളുകൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞങ്ങള് പാ നടത്താറുണ്ട് അതൊക്കെ നടത്തുമ്പോള് ഞമ്മക്കൊരു സന്തോഷവത് കാണുമ്പോഴുള്ള നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും മുതിര്ന്നവരുമെല്ലാം കളിക്കുന്ന കാണുമ്പം നമുക്ക് ഒരു സന്തോഷമാണ്